ഞാനാദ്യം തന്നെ പറയുന്നത് ഒരു നീന്തൽ പഠനത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നമ്മൾ ഇനി വളർന്നുവരുന്ന തലമുറ സ്കൂളുകളിൽ തന്നെ നീന്തലിൻ്റെ അതായത് പഠനസൗകര്യങ്ങൾ സ്കൂളിൽത്തന്നെ ഉണ്ടാക്കുകയെന്നുള്ളതാണ് അത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഫ്യൂച്ചറിൽ ആ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഒരു കുളത്തിലോ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് സെൽഫായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അതൊരു പഠനകലയാക്കാൻ തീർച്ചയായിട്ടും ഞാനാഗ്രഹിക്കുന്നു അത് ഇങ്ങനെ പറഞ്ഞാണല്ലോ പലരും പറഞ്ഞാണല്ലോ ഗവൺമെറ്റിൻ്റെ ഇനി വരികയും അതൊരു പാഠ്യവിഷയമായി മാറുകയും അങ്ങനെ സമൂഹത്തെ തീർച്ചയായിട്ടും നല്ല കരുത്തുറ്റ ഒരു സ്വയം പ്രതികരിക്കാൻ ഉള്ളൊരു മാർഗ്ഗമായി മാറട്ടെ എന്നാണ് ഞാനധി വേഗം പറയാനുള്ളത് അതിനായി പിള്ളേരു തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളാരെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം നീന്തൽകുളങ്ങൾ ട്രെയിനിങ് സെൻ്റർ ഉണ്ട് അവടെയാകുമ്പോഴത്തേക്കും നമുക്ക് ധൈര്യമായിട്ടുവിടാം അവർക്ക് അതിനോടുള്ള അനുബന്ധിച്ചുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉള്ളതു കാരണം തീർച്ചയായിട്ടും പഠിപ്പിക്കണോ എന്നുള്ളതാണ് പിന്നെ നീന്തൽ ഫ്യൂച്ചറിൽ വ്യായാമമാക്കാനുള്ള കാരണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീന്തൽ നമ്മൾ സ്വിമ്മ് ചെയ്യുക നീന്ത് ചെയ്യുക എന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ബോഡി നല്ല ഒരു എക്സൈസാണ് നമ്മുടെ കൈ മുതല് കാൽപാദം വരെ എല്ലാ വിധ നമ്മുടെ ബോഡി പാർട്സുകളും ഈ ഒരു നീന്തൽ കൊണ്ടു നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബോഡിക്കുത്തമമായ ഒരു വ്യായാമ പ്രക്രിയയാണ് നീന്തൽ ഒരു നീന്തൽ ഒരു ഡേ ഡെയിലി അര മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ ആണെങ്കിൽ രാവിലെ അരമണിക്കൂർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറു തന്നെ മാറും നമുക്ക് ഫ്യൂച്ചറിൽ ഒരു അണ അണക്കുന്ന ഒരു സംഭവങ്ങൾ നമുക്ക് അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല അതുകാരണം തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായിട്ടും ഈ നീന്തൽ പഠിക്കുകയും പഠിച്ചുകഴിഞ്ഞാൽ അവൻ വ്യായാമം ഡെയിലി വ്യായാമം ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതു നമ്മൾ അതൊരു പുതിയ തലമുറക്ക് അതു കൊടുക്കുന്ന ഒരു വാഗ്ദാനം കൂടിയാണ് അതിനായി നമ്മൾ തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ നയ്ബേഴ്സ് ആയിയുള്ളവരെയും പറഞ്ഞ് ഇതിനകത്ത് തീർച്ചയായിട്ടും വിട്ട് അവരെ ഈ നീന്തൽ പഠിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കിട്ടുന്ന വലിയൊരു പ്രതീക്ഷയാണ് ഇപ്പം ഞാനിപ്പം ഈ പറയുന്ന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിലൊന്നും കുളങ്ങളൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു കിഴക്കൻ പ്രദേശത്തായിരുന്നു പക്ഷെ എനിക്ക് ഒരു പത്തം ക്ലാസ് കഴിഞ്ഞപ്പം മുതൽ എനിക്ക് എന്തോ ഒരാഗ്രഹം തോന്നി ഇതു പഠിക്കണമല്ലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തുള്ള ഒരു സർക്കാർ കുളത്തിൽ പോയി പഴയകാലത്ത് പഠിക്കാമെന്നു പറഞ്ഞാൽ ടാസ്ക്കാണ് കാരണം ഇത് വലിയ കുളമാണ് ഇത് ആഴം ഭയങ്കരമായ ആഴമാണ് അതിനു ഞങ്ങൾ ചെയ്തത് കയറ് നമ്മുടെ കൈ കയ്യുടെ അടിയിൽ കൂടി കയറിട്ടു കെട്ടിയിട്ട് ഒരാൾ മേളി പിടിക്കും എന്നിട്ട് ഈ പഠിക്കേണ്ടവനെ ചാടിപ്പിടിക്കുക അപ്പോൾ എപ്പോഴും ഒരാളുടെ കയ്യിൽ കയറുള്ളതു കാരണം നമുക്ക് ധൈര്യപൂർവം അതു നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ താ നമ്മൾ താഴ്ന്നുപോകുമ്പം ഇവർ പൊക്കും അങ്ങനെയുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് അതുകാരണം നീന്തൽ നല്ലൊരു വ്യായാ വ്യായാമം ആണ് തീർച്ചയായിട്ടും നീന്തി എല്ലാ മനുഷ്യരും തന്നെ എങ്ങിനെയെങ്കിലും സമയം കണ്ടെത്തി നീന്താൻ പഠിച്ചിട്ടു പഠിച്ചതിനു ശേഷം നീന്തുന്നതു നല്ലതാണ്